കോറോണയുടെ സമയത്ത് എനിക്ക് വളരെ മോശമായിരുന്നു വളരെയധികം സാമ്പത്തികമായി ഉള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത് അതേസമയം ആരോഗ്യപരമായി യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഞാനും എൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും കോറോണക്ക് എതിരെയുള്ള മുൻകരുതലുകൾ എല്ലാം സ്വീകരിച്ചിരുന്നു അതനുസരിച്ചാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത് സൊ കൈ കാലുകൾ സോപ്പിട്ട് കഴുകുക സാമൂഹ്യ അകലം പാലിക്കുക മാസ്ക് ധരിക്കുക അത്യാവശ്യ കാര്യങ്ങള്ക്ക് മാത്രമേ പുറത്ത് പോയിരുന്നുള്ളൂ അതും കുടുംബത്തിലെ നാഥൻ അതായത് അച്ഛൻ മാത്രമാണ് അധികം പുറത്ത് പോകുക എല്ലാ കാര്യങ്ങളും ഒരു യാത്രയിൽ തന്നെ ചെയ്ത് തീർക്കുമായിരുന്നു അത്കൊണ്ട്തന്നെ കുടുംബത്തില് കൊറോണയെ ഞങ്ങളെ ബാധിച്ചില്ല അതാണ് അതിൻ്റെതായ കാര്യങ്ങള് മാത്രമല്ല കൊറോണ സമയത്ത് ഞങ്ങൾ കൂടുതൽ പച്ചക്കറികളും ഞങ്ങൾക്ക് വേണ്ടതായ എല്ലാ വസ്തുക്കളും ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ പുറത്തുനിന്ന് വാങ്ങിക്കുകയും ചെയ്തിരുന്നുള്ളൂ